ചെറുപ്പകാലത്ത് എൻ്റെ അച്ചാച്ചൻ്റെ സഹോദരളും അവരുടെ മക്കളുമെല്ലാം മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമൊക്കെ വീട്ടിലേക്ക് വരും പിന്നെ എൻ്റെ മമ്മീടെ സഹോദരങ്ങളുണ്ട് രണ്ട് ചേച്ചിമാർ അവരുടെ മക്കൾ അവർ മിക്കവാറും ഒരാഴ്ച്ചെലൊക്കെ അടുത്തക്ക താമസിക്കുന്ന കൊണ്ട് അവരിങ് വരും അതൊക്കെ വെള്ളപൊ വെള്ളോ വെള്ളോക്കെ നമുക്ക് കണ്ടമൊക്കെ നിറഞ്ഞ് കിടക്കുന്ന സമയമൊക്കെ വരുവാണേൽ നല്ല രസമാണ് അവരെല്ലാവരും അവിടെ തോട്ടി പോയി ഒന്നിച്ച് കുളിക്കുന്നു അവർ അടുത്തൊക്കെ വീട്ടിൽ പറമ്പിൽ മാങ്ങയുണ്ട് അതൊക്കെ പറിച്ചും കളിച്ചും പേരെ കയറിയക്കെ എന്തൊരു രസമായിരുന്നന്ന് അറിയാമോ ഇന്നത്തെ ഇന്ന് അവരൊക്കെ ജോലികര്യമൊക്കെ ആയി നമ്മുടെ അടുത്തൊന്നുല്ല വെളി രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നതിപ്പം അവരെക്കെ കണ്ട് മുട്ടാൻ തന്നെ മാസങ്ങളെന്നില്ല വർഷങ്ങൾ തന്നെ നോക്കി ഇരുന്നാലേ ഒന്ന് കാണാൻപോലും പറ്റുവൊള്ളൂ അന്ന് കാലത്ത് ജീവിച്ചിരുന്നത് വെച്ച് നോക്കുമ്പം ഇന്ന് അതുപോലെ ആയിരുന്നെങ്കിൽന്ന് തോന്നിപോവും പക്ഷേ ഓരോരോ മനുഷ്യരുടെ സാഹചര്യം കൂടെ വെച്ച് നോക്കുമ്പം പണ്ട് കാലത്തേതായ ഉള്ള ഒരു എന്താപറയുന്നൊരു സന്തോഷമോ അല്ല അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം പഴയതിനത്രയും ഇല്ല പണ്ട് കാലത്ത് കൂട്ടുകുടുംബമായിരുന്നു കൂട്ടുകാരും ആൾക്കാരും എല്ലാരുമായിട്ട് താമസിക്കുന്ന ഒരു സഹകരിക്കുകയും ചെയ്യുമ്പം അതിൻ്റെതായ സന്തോഷം കൂടുതലായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നോ രണ്ടോ പേരുകളായി രണ്ട് പേരുണ്ടെങ്കിൽ ഒരാൾ ദുബായിൽ ഗൾഫിൽ അവരുടെ രാജ്യത്തിലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ച് കാണാൻ പോലും ഉള്ളൊരു സാഹചര്യം ഇല്ലാത്തൊരു അവസ്ഥയിലാണ്